ആ ഇത് ഹോം ആ ഗുഡീവിനിംഗ് ഇത് ഹോമപ്ലയൻസ് ഷോപ്പല്ലേ അതെയല്ലേ ആ ഓക്കെ ഹൈ റേഞ്ച് നിങ്ങള്ക്ക് നമ്മള്ക്കൊരു ഒരു മിക്സി വേണമായിരുന്നു അതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു വിളിച്ചത് ആ മിക്സര് മിക്സര് ആ അതെ അതെ അതെ അത് ഏതൊക്ക ബ്രാന്റുകളാണവിടെ ഇപ്പോള് അവൈലബിളായിട്ടുള്ളത് ആ ഓക്കേ ആ ഇത് ഏകദേശം ഇതിൻ്റെ റേറ്റുകളൊക്കെ എന്തോരമാകുമെന്നു പറയാന് പറ്റുമോ

ആ ആ ആറു ജാറുകളെന്നു പറയുമ്പോള് അതെന്തൊക്കെ പർപ്പസിനുള്ള ജാറുകളായിരിക്കും

ഓക്കെ അപ്പോള് സുജാതയുടെ മിക്സിക്കൊക്കെ ഏകദേശമെത്ര റേറ്റ് വരുന്നുണ്ട്

ആ ഓക്കെ ഓക്കെ അപ്പോള് ഏറ്റവും സർവീസ് കൂടുതല് നമ്മളുടെ നാട്ടിലവൈലബ്ളായിട്ടുള്ളതേതൊക്കെയാണ്

ആ ഓക്കെ നമ്മള് കൂടുതല് നമ്മുടെ നാട്ടിലുള്ള ആളുകള് ആ കൂടുതല് സെയ്ലുള്ളതേത് ബ്രാൻ്റാണ്

ആ അതു നമുക്ക് ഈ കംപ്ലെയ്ൻ്റൊക്കെ വന്നുകഴിഞ്ഞാല് വീട്ടിൽ നിന്ന് ഇത്

അതെ നിങ്ങളെത്ര നാളായി ഇവിടെ ബിസ്നെസ്സ് സ്റ്റാട്ടെയ്തിട്ട്

എട്ടു വർഷമായി അല്ലേ ആ ഓക്കേ അപ്പോള് ഈ ഇനി ക്രിസ്മസിനോട് ഇനിയിപ്പോള് അടുത്ത എന്താണ് ഓഫര് കൂടുതല് വരാനെന്തേലും സാഹചര്യം സാധ്യതയുണ്ടോ ആ ഫിഫ്റ്റി പെർസെൻറ്റോഫര് വരുന്നുണ്ടല്ലേ ആ ഓഫറില് നിങ്ങള് വിൽക്കുന്നത് മറ്റേ ആ ഇനിയും ഈ റീസെൻ്റ് ഇയറില് വന്ന സാധനങ്ങളാണോ അതേയോ ഓൾഡ് സ്റ്റോക്കാണോ നിങ്ങളുടെ കടയില് ഓക്കേ അപ്പോള് നിങ്ങള് പഴയ ഓൾഡ് സ്റ്റോക്കൊക്കെ അപ്പോഴെന്തു ചെയ്യും കമ്പനിയിലോട്ട് റിട്ടൺ ചെയ്യും ഓക്കേ അപ്പോഴതിനെക്കുറിച്ചിട്ടാണ് പിന്നേ അല്ലാതെ വേറൊരോപ്ഷനെന്തായിരിക്കും ഈ പ്രീതിയല്ലാതെ നമുക്കു ശരിക്കു ഹോം പർപ്പസ് മാത്രമേ ഉള്ളൂ വീട്ടിലത്യാവശ്യ ആവശ്യങ്ങൾക്കുള്ള ഒരു ഉപയോഗത്തിനാണ്

ജ്യൂസറെല്ലായിടത്തും കോമണായിട്ട് ആ ഓക്കെ ഓക്കെ

ആ ഓക്കെ കറണ്ട് ചെലവേറ്റവും കുറവുള്ളത് ഏത് കമ്പനിക്കാണെന്നങ്ങനെ ആലോചിക്കൂ

നാല് മിനുട്ട് കഴിഞ്ഞിട്ടും കട്ടാവുന്നില്ലത് മിനുട്ട് അവിടെ അതെ എന്നാല് ശരി ശരി